പാട്ടു പാടാൻ ആഗ്രഹമുള്ളവരെ നമ്മൾ അവരെ അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടത് പാട്ടുപാടാനെന്നു പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കഴിവുകൾ ഈശ്വരൻ കൊടുക്കും എല്ലാവർക്കും കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അതും പലരൂപത്തിലാണ് ചിലവർക്ക് പാട്ടുപാടാനായിരിക്കും ചിലവർക്ക് കവിത എഴുതാനായിരിക്കും ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും അങ്ങനെ ചിലർക്ക് ആഹാരം പാകം ചെയ്യാനായിരിക്കും അങ്ങനെ പലർക്കും പല കഴിവുകളാണ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത് അതിലേറ്റവും എല്ലാവർക്കും ചെയ്യാനൊരു പാട്ടുപാടുക പാട്ടുപാടുകയെന്ന് പറഞ്ഞാൽ അത് ഈശ്വരാനുഗ്രഹം ഉള്ളൊരു കലയാണ് പാട്ടു പാടാൻ ആഗ്രഹമുള്ളവർ പ്രാക്ടീസ് ചെയ്യുകയോ നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ പോയി ശിക്ഷണം നേടുകയോ ഒക്കെ ചെയ്യുക പിന്നെ നമ്മൾ നാട്ടുകാർ ഇപ്പം നമ്മളെ ഈ നാട്ടിലൊരു കുട്ടിക്കിപ്പം നല്ലവണ്ണം അവരെ പ്രോത്സാഹിപ്പിക്കണം അവരെ പല വേദികളിൽ പങ്കെടുപ്പിച്ച് അല്ലെങ്കിൽ ചെറിയതായിട്ട് നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ വേദികളിൽ പങ്കെടുപ്പിച്ച് പങ്കെടുപ്പിച്ച് അവരുടെ സ്റ്റേജിൻ്റെ സ്റ്റേജിൽ കയറി പാടാനുള്ള ആ ഭയം ഒക്കെ മാറ്റി എടുത്ത് അങ്ങനെ പടിപടിയായിട്ട് അവരെ ഉയർത്തിക്കൊണ്ട് വരികയാണ് വേണ്ടത് അതുപോലെ നല്ല ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ പറഞ്ഞു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ അഭ്യസിക്കുക പിന്നെ നല്ല രീതിയിൽ സാധകം ചെയ്യുക നല്ല നല്ല പാട്ടുകളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക അതൊക്കെ ഒരു പാട്ടുപാടാനുള്ള ഒരു പിന്നെ കഴിവ് മെച്ചപ്പെടുത്താൻ കഴിയും അതുപോലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആൾക്കാർ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കഴിവുള്ള കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം പിന്നെ എന്താ പറയുന്നത് എല്ലാ അവർ സ്കൂളുകളിൽ പഠിക്കുകയാണെങ്കിൽ സ്കൂളിലെ കോമ്പറ്റീഷനുകളിലെ യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കണം അവർ അവർക്ക് അഥവാ ഒരു പ്രാവശ്യം തോറ്റെന്ന് വച്ച് അല്ലെങ്കിൽ അവർക്ക് സമ്മാനം കിട്ടണത് പിന്നേയും കൂടുതൽ പഠിച്ച് പഠിച്ച് അടുത്ത പിന്നെ യുവജനോത്സവത്തിൽ അതിൽ മെച്ചപ്പെടുത്താം അങ്ങനെ ഓരോ പ്രാവശ്യം മെച്ചപ്പെടുത്തി ഏറ്റവും നല്ല കലാകാരനായിട്ട് തീരാൻ അവർക്ക് സാധിക്കും കാരണം അവർക്ക് കഴിവ് വേണം നമ്മൾ അതിനെ നമ്മുടെ കഴിവ് നമ്മൾ ഉപയോഗിക്കണം അതിനെ വേണ്ട ശിക്ഷണങ്ങൾ ശിക്ഷണം നേടണം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം തോറ്റെന്ന് വച്ചിട്ടൊ ഓഹ് ഞാൻ എന്നെ കൊണ്ട് ഇനിയും പറ്റത്തില്ല എന്നു പറഞ്ഞ് മാറിയിരിക്കരുത് കാരണം ഓരോ പ്രാവശ്യം തോക്കുംതോറും പിന്നേയും പിന്നേയും പഠിച്ച് നല്ല നല്ല കഴിവ് തെളിയിച്ചുകൊണ്ട് വന്ന് അത് പാടിയെങ്കിൽ അല്ലേ ആ പാടിപ്പാടി തെളിഞ്ഞെങ്കിലെ നല്ലെയൊരു ഗായകനായിട്ട് വരത്തുള്ളൂ അല്ലാതെ അതാണ് പറഞ്ഞത് പാട്ടിന് വേണ്ടി ഏറ്റവും വലിയ അത്യാവശ്യം എന്നാൽ പാടിപ്പാടി അവരുടെ സ്വരം നല്ലതാക്കുകയെന്നുള്ളതാണ് സ്വരം നല്ലതാക്കി നല്ലെയൊരു ഗായകനായിട്ടോ അല്ലെങ്കിൽ ഗായികയായിട്ടോ വരും അതിനുവേണ്ടി നല്ല പിന്നെ നല്ല എന്നു പറഞ്ഞാൽ അവർ നല്ലപോലെ പഠിക്കുക അതെ ഉള്ളു ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം